എ പി ജെ അബ്ദുൽ കലാം ശശി തരൂർ ശശി തരൂർ പിണറായി വിജയൻ നരേന്ദ്ര മോദി തകഴി തകഴി ശിവശങ്കരപ്പിള്ള

എം ഡി വാസുദേവൻ നായർ